കേരളത്തിൽ പൊതുവായി എല്ലാവരും യാത്രക്കായി ഉപയോഗിക്കുന്നത് ബസ് സർവീസിനെയാണ് കേരളത്തിൽ രണ്ട് തരത്തിലുള്ള ബസ് സർവീസുകൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് പ്രധാനമായും സ്വകാര്യ ബസുകളും അത് പോലെ തന്നെ സർക്കാരിൻ്റെ അധീനതയിലുള്ള കെ എസ് ആർ ടീ സി പോലെയുള്ള സംവിധാനങ്ങളുമാണ് പൊതു ഗതാഗതമെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ചിലവുള്ളൊരു കാര്യമല്ല എല്ലാ റൂട്ടിലും സ്വകാര്യ ബസുകളും അത് പോലെ തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസുകളും ധാരാളമായി ഓടുന്നുണ്ട് എന്നാൽ ചില ദേശ റൂട്ടുകളിൽ മാത്രം സ്വകാര്യ ബസുകൾക്ക് അനുമതി നൽകിയിട്ടില്ല അവിടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കെ എസ് ആർ ടീ സി ബസുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും സർക്കാരിൻ്റെ കെ എസ് ആർ ടീ സി നയ നയം ഒരു ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തി കൊണ്ട് പോകുവാൻ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ കെ എസ് ആർ ടീ സി ഓടുന്നുണ്ട് എല്ലാ സമയത്തും ട്രിപ്പ് എടുക്കുന്നുണ്ട് പക്ഷെ ലാഭകരമല്ല അവിടെയുള്ള കെ എസ് ആർ ടീ സി യിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അത് പോലെയുള്ള പെൻഷൻകാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും യഥാസമയം നൽകുവാൻ വേണ്ടി നമ്മുടെ ഭരണ കർത്താക്കൾക്ക് സാധിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ബസ് ജീവനക്കാരുടെ പെരുമാറ്റം തന്നെയാണ് കെ എസ് ആർ ടീ സി എന്ന് പറഞ്ഞാൽ അവർക്ക് നിശ്ചിത തരത്തിലുള്ള ഒരു കോട്ട അതായത് സീറ്റിൽ മുഴുവൻ ആളുകൾ വേണമെന്നില്ല ഒരു റൂട്ടിൽ കെ എസ് ആർ ടീ സി ഓടുന്നുണ്ടെങ്കിൽ ആൾ യാത്രക്കാരെ കയറ്റുവാൻ അതിലുള്ള സ്റ്റാഫുകൾ ശ്രദ്ധിക്കണം ഒരു സ്വകാര്യ ബസുകാർ മത്സര ബുദ്ധിയോടെ ആളുകളെ കയറ്റുന്ന രീതിയിൽ നമ്മളുടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസുകളും ആ രീതിയിൽ അതിലുള്ള ജീവനക്കാർ മത്സര ബുദ്ധിയോടുകൂടെ ആളുകളെ കയറ്റിയാൽ മാത്രമേ ഈ കേരളത്തിൻ്റെ പൊതു ഗതാഗത സംവിധാനം ലാഭത്തിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു ഇന്നത്തെ അവസ്ഥയിൽ വഴി വഴിയിൽ നിന്നൊരു യാത്രക്കാരൻ ബസിൽ കയറാൻ വേണ്ടി കൈ കാണിച്ചാൽ അവരെ കാണാത്ത രീതിയിൽ ഒന്നു കൂടെ സ്പീഡ് കൂട്ടി കൊണ്ടു വണ്ടി ഓടിച്ച് പോകുന്ന

നമ്മുടെ സ്വകാര്യ ബസ്സുകളെയാണ് ഇത്തരത്തിലുള്ള സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങള് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അതില്ലാതായി കൊണ്ട്സാർക്കാരിൻ്റെ ഭാഗത്തുള്ള പൊതു ഗതാഗതത്തെ ആശ്രയിക്കാൻ ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലേക്ക് കുറ്റമറ്റ രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ നടത്തി കൊണ്ട് പോകാൻ നമ്മളുടെ ഭരണ കർത്താക്കൾ ശ്രദ്ധിക്കണം അത് പോലെ തന്നെയാണ് ഇന്ത്യയുടെ ഉള്ള കൂടുതൽ ആളുകളും യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ട്രെയിൻ ഗതാഗതത്തെയാണ് ഈ ട്രെയിൻ ഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ കേരളത്തിൽ കൂടുതലായിട്ടുള്ള ട്രെയിൻ ഗതാഗതം അനുവദിച്ച് തരുന്നതിൽ പല കേന്ദ്ര സർക്കാരുകളും ഇപ്പോൾ അതിനുള്ള പരിഗണന നൽകുന്നില്ല നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ മാത്രം ഓടിക്കുന്ന രീതിയാണുള്ളത് എന്നാൽ ട്രെയിൻ ഗതാഗതം കുറ്റമറ്റ രീതിയിൽ നടന്നു പോകുന്ന കൂടുതൽ ആളുകളും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്നൽ കേരളത്തിന് പുറത്ത് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കർണാടകം ആന്ധ്ര ആ ഭാഗത്തിലൊക്കെ നമ്മള് യാത്ര ചെയ്യുകയായെങ്കിൽ അവിടെയൊന്നും ആളുകൾ ടിക്കറ്റ് എടുക്കുന്നൊരു പതിവില്ല അത് കൊണ്ട് തന്നെ അവിടുങ്ങളിന്നൊക്കെയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിള്ള ആളുകളാണ് നല്ല രീതിയിൽ ട്രെയിനായാലും ബസായാലും യത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ പൊതു ചിത്രം വച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഉള്ള ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിൽ വലിയൊരു ചിപ് ചിലവ് താങ്ങാനാവാത്ത ചിലവ് കേരളത്തെ സംബന്ധിച്ചെടുത്തോളം യാത്രകൾക്കില്ല എന്നാൽ ഇന്ത്യയുടെ പൊതു സ്ഥിതി നോക്കുമ്പോൾ യാത്രകൾ വലിയ ചിലവേറിയതായിട്ടാണ് നമുക്ക് മനസിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്